എൻ്റെ വീട്ടിൽ കന്നുകാലികൾ നിലവിലില്ലെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ കൂടുതലായിട്ടും കന്നുകാലികൾ വളർത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ജനിച്ച കിടാങ്ങളെ ഞങ്ങൾ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തിരുന്നു ചെറു കാലുകളതിനെ ചെറു പ്രായത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കേണ്ടതുണ്ട് എന്തെന്നു വെച്ചാൽ എത്രയും പെട്ടെന്ന് ഏത് അപകടങ്ങളിലും എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെ വലുതാണ് അതുപോലെ തന്നെ മറ്റു ജീവികളിൽ നിന്നുള്ള മൃഗങ്ങളിൽ നിന്ന് അക്രമങ്ങളും ഇവർക്കു നേരിടേണ്ടി വന്നേക്കാം ഇതിൽ പ്രധാനമായിട്ടും ഇവകൾ ജലാശയം മറ്റു ഇനി ഇവയുടെ അടുക്കലൂടെ പോകുന്നത് അതിലേക്ക് സമ്മർദ്ദം മൂലം അവർ വീഴാനും അതു പോലെ തന്നെ അശ്രദ്ധ മൂലം അതിലേക്കു വീഴാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതൊക്കെ ഇവരെ ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഘടകങ്ങളായിട്ട് നമുക്ക് എണ്ണപ്പെടാവുന്നതാണ് അപ്പം ഈ ചെറു പ്രായത്തിൽ അതിൻ്റെ അമ്മ പ്രത്യേകമായിട്ട് കന്നുകാലികൾക്ക് പാലും അതിനു വേണ്ടിയിട്ടുള്ള പോഷകാഹാരങ്ങളും നൽകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അതു പോലെ തന്നെ ഇവകൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം നൽകുക എന്നുള്ളത് അവയുടെ നല്ലതായിട്ടുള്ള വളർച്ചക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അവയെ കൃത്യമായിട്ടുള്ള ഇടവേളയിൽ നല്ല വൃത്തിയിൽ കുളിപ്പിച്ചും മറ്റും അതിനെ വൃത്തിയോടെ മുന്നോട്ടു കൊണ്ടു പോകുക